എൻ്റെ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ തരുന്ന ഒന്നാണ് എൻ്റെ തോട്ടത്തില് പൂക്കളുണ്ടായിക്കാണുന്നത് കുറച്ച് ചെടികളൊക്കെ എൻ്റെ തോട്ടത്തിലുണ്ട് അതെല്ലാം പൂച്ചെടികൾ തന്നെയാണ് പക്ഷെ അതിലിങ്ങനെ പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഇല്ലേ ചെടികളെയും പൂക്കളെയും ഒക്കെ പ്രണയിക്കുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയാണ് എനിക്കാണെങ്കിൽ ഇങ്ങനെ നട്ടു വളർത്തുക പൂവ് കാണുക പറിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല പക്ഷെ ഇങ്ങനെ പൂ കാണുക അതില് വെള്ളം ഒഴിക്കുക ഓരോ ദിവസവും നോക്കി അതിനോട് ചെറിയ ചെറിയ വർത്തമാനങ്ങള് പറയുക ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അത് മാത്രമല്ല ഞാൻ കുഞ്ഞു കുഞ്ഞു ചെടികളും കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മരങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചെറിയ സപ്പോർട്ട തൈ ചെറിയ പേരക്ക തൈ അങ്ങനെയൊക്കെയുള്ളത് അതൊക്കെ വളർന്നു വരുന്നതേ ഉള്ളു പക്ഷെ അതിലൊക്കെ ഈയിടെ ഒരു പേര തയ്യില് കുഞ്ഞൊരു കായ് ഉണ്ടായി ഓ അത് കണ്ടപ്പോൾ എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത സന്തോഷമായിരുന്നു അതുപോലെതന്നെ പൂക്കളും പൂക്കളിറുക്കുക അല്ലെങ്കില് പൂക്കൾ ആരെങ്കിലും പറിച്ചുകൊണ്ടു പോവുക ആരെങ്കിലും വന്ന് ചെടി ചോദിക്കുക ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എനിക്കതിങ്ങനെ കണ്ടോണ്ടിരിക്കണം ഓരോ ദിവസവും അതിനെ പോയി തൊട്ട് തലോടി പൂമ്പാറ്റകളൊക്കെ വന്ന് അതിനെ മുത്തമിട്ട് പോകുന്നതൊക്കെ കാണുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് ഒരു മനസ്സിനൊരു സുഖം നമ്മളീ ചെടി വളർത്തുന്നതുകൊണ്ട് അത് നമ്മുടെ ഒരു മാനസിക ഉല്ലാസത്തിനു വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നതല്ലേ എനിക്ക് അതുപോലെതന്നെ രാവിലേയും വൈകിയിട്ടും അതിനു വെള്ളം ഒഴിക്കുക മാസത്തിലൊരിക്കലതിനു വളമിട്ട് കൊടുക്കുക ചെടിക്ക് ചെടി വാടുമ്പോൾ പുതിയ ചെടി നട്ടു കൊടുക്കുക ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള സംഗതികളാണ്